ഹലോ ഇത് വസന്ത് വിഹാർ ഹോട്ടൽ ആണ്

മസാലദോശ ഉണ്ട് റോസ്റ്റ് ഉണ്ട് വട ഉണ്ട് നിങ്ങൾക്ക് എന്ത് വേണം ആ എത്ര വേണം ആ ഒരു മസാല ദോശക്ക് എൺപത് രൂപ ആണ് ആ ഒരു മസാല ദോശ മസാല ഉണ്ട് റോസ്റ്റ് ഉണ്ട് മസാലക്ക് എൺപത് രൂപ പത്ത് പത്ത് ഇത് അയച്ച് തരണോ എവിടെ ആണ് അയക്കേണ്ടത് ഓട്ടോറിക്ഷയിൽ കാശ് നിങ്ങൾ കൊടുക്കണം ആ എവിടെ ആണ് അയക്കണ്ടത് എഡ്രസ്സ് പറഞ്ഞോളൂ എവിടെ ആണ് അയക്കേണ്ടത് എഡ്രസ്സ് പറഞ്ഞോളൂ ഒരു അര ഒരു മണിക്കൂർ ലേറ്റ് ഉണ്ടാവും ആ അശോകനെന്ന് പറഞ്ഞ കലാനിയത്തിലേക്കാണോ ആ ഒരു മണിക്കൂർ കഴിയും ഒരു മണിക്കൂറിനുള്ളിൽ എത്തും സാധനം വട ഉണ്ട് വട ഉണ്ട് ബെൻസ് ഉണ്ട് ചപ്പാത്തി ഉണ്ട് വൊളിഗെ ഉണ്ട് ബോളി ഉണ്ട് ബോളി ബജി ഉണ്ട് റോസ്റ്റ് ഉണ്ട് എന്ത് വേണം ബോളി ബജി എത്ര ഒരു ഒരു ഒരു പ്ലേറ്റിൽ നാല് എണ്ണം ഉണ്ടാവും എത്ര പ്ലേറ്റ് വേണം ആ ഒരു പ്ലേറ്റിന് അമ്പത് രൂപ ആ ഒരു പ്ലേറ്റ് മാത്രം മതിയോ ബെൻസ് വേണ്ടേ ബെൻസ് വേണ്ട ആ കാശ് റിക്ഷക്കാരൻ്റെ കൈയ്യിൽ കാശ് കൊടുക്കണേ ആ ഇപ്പോൾ അയക്കാം ആ ആ ആ